ഹലോ ഇവിടെ ആരും ഇല്ലേ ചേച്ചി ആ ആ അതേ രാവിലെ കഴിക്കാൻ ആയിട്ട് എന്താ ഉള്ളത് ഇവിടെ ആ ആ ഈ ദോശയും ഇടിയപ്പവും ഒരു പത്തുപതിനഞ്ച് പേർക്ക് കഴിക്കുനുള്ളത് ഫുഡ് ഉണ്ടാകുമോ ഉണ്ടാകുമല്ലെ ആ ചായയും വേണേ അതിൻ്റെ കൂടെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വന്നതാ അപ്പോൾ വെളുപ്പിനേ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പം തിരിച്ചുപോകുമ്പോൾ കഴിച്ചിട്ട് പോകാമല്ലൊ എന്ന് വിചാരിച്ചിട്ടാണ് വയസായ ആൾക്കാരും കുറച്ച് ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ടേ അപ്പം നല്ല ഫുഡ് ആണല്ലോ അല്ലേ പതിനഞ്ചു പേർക്കിരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ടാകുമല്ലൊ ആ ഇതിൻ്റെ ബാക്കി കാണുന്നത് നിങ്ങളുടെ വീടാണേ അപ്പോൾ നല്ല ഫുഡ് ആയിരിക്കുവല്ലോ അല്ലേ ആ ഇത് ന്യൂസിലൊക്കെയെ ഫുഡിൻ്റെ ഇതൊക്കെ കുറച്ച് ന്യൂസുകളൊക്കെ കേൾക്കുന്നത് കൊണ്ട് ചോദിച്ചതാട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണെ ഒന്നും തോന്നരുതേ ആ ഞങ്ങള് വരുന്ന വഴിക്ക് കുറെ ഹോട്ടലുകള് കണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ഇത്തിരി ബെറ്ററായിട്ട് തോന്നിച്ചു അതുകൊണ്ടാണെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പം കയറിക്കൊള്ളാം അപ്പം ഇത്ര പേർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്നു കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ് ഒരു പത്തു മണി കഴിയുമ്പത്തേക്കും ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും അപ്പോഴേക്കും ഇല്ല പാർ പാർസൽ അല്ല ഞങ്ങൾ ഇവിടിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടോ ആ അപ്പോൾ അതൊന്ന് മാറ്റിവെച്ചേച്ചാൽ മതിയേ ദോശയും ഇടിയപ്പവും ആയിരിക്കും കൂടുതല് പിന്നെ ചപ്പാത്തി ഉണ്ടാകുമോ ഷുഗറുകാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണെ ഓ സം സംഘടിപ്പിക്കാൻ പറ്റുവോ വയസായ രണ്ട് പേരുണ്ടെ അപ്പം അവർക്ക് ആ കുഴപ്പമില്ല ഞങ്ങള് വരുമ്പത്തേക്കും സമയമുണ്ടാകുമല്ലൊ അപ്പോഴേക്കും ഒന്ന് ശരിയാക്കി വെച്ചാൽ മതി ആ അല്ലെങ്കില് പ്രശ്നമില്ലായിരിക്കും സ്ഥിരം ഒക്കെ കഴിക്കുന്നതാണല്ലോ വീട്ടില് ഈ ദോശയും കറി മുട്ട കറി ആ ഇടിയപ്പത്തിൻ്റെ കൂടെ മുട്ട കറി പിന്നെ ദോശയ്ക്ക് സാംബാറ് അങ്ങനെ ഉണ്ടാകുമല്ലോ വെജിറ്റബിളിൻ്റെ തന്നെ മതി ഉം മറ്റേ ചപ്പാത്തിക്കേ ഉം അവിടെ വെച്ചാൽ മതി ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരിക ആ ആയിരിക്കുമല്ലെ ചപ്പാത്തി ആ ശരി ആ കുഴപ്പമില്ല അതേ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം അപ്പം ഞങ്ങള് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയറിക്കൊളാം അപ്പത്തേക്ക് ഇതൊക്കെയൊന്ന് റെഡിയാക്കി വെച്ചാൽ മതിയേ എന്നാൽ ശരി ചേച്ചി പോയിട്ട് വരാം